ആ ഹലോ ചേച്ചി നാളെ ഹൗസ് ഓണർ വരുമ്പം ഞാൻ അപ്പം നാളെ ചേച്ചി ജോലി വര്ക്കിന് നിൽക്കുമോ ഇല്ലയോന്ന് അറിയാന് വേണ്ടിയായിരുന്നു ആ ചേച്ചി കുറച്ച് പൈസ കൂടുതലായിട്ട് തരാം ഇപ്പം വീട്ടിൽ പ്രത്യേകിച്ച് വലിയ പണികളൊന്നും ഇല്ല ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കുക കുഞ്ഞിനെ നോക്കുക പിന്നെ കുറച്ച് അവിടെ ഇങ്ങനെ തൂത്ത് വാരുക പിന്നെ

ആ ആ അപ്പോൾ ചേച്ചി കുറച്ച് ജോലി നമ്മൾ വലിയ കഠിനാധ്വാനം ആയിട്ട് നമ്മൾ ജോലി തരുന്നില്ല കുറച്ച് ജോലിയെ ഉള്ളു അപ്പം ചേച്ചിയൊന്ന് നിൽക്കാന് പറ്റുമോ ഇല്ലയോ എന്നറിയുകയാണെങ്കിൽ ജസ്റ്റ് കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കുക കിടത്തുക അത് കൊച്ചിന് ഫുഡ് കൊടുക്കുക പിന്നെ എനിക്കൊന്ന് വീട്ടിൽ നാളെ നിൽക്കാന് പറ്റില്ല അതുകൊണ്ടാണ് ഞാന് ചേച്ചീനെ ഒന്ന് ഏൽപ്പിക്കുന്നത് അപ്പം ചേച്ചിയൊന്ന് പറയുകയായിരുന്നെങ്കിൽ അത്രയും എളുപ്പമായിരുന്നു ആ പിന്നേ എന്ന് പറയുകയാണെങ്കിൽ വീട്ടിലെ കുറച്ച് പണികള് മാത്രം ഉള്ളു ചോ ഫുഡ് ഉണ്ടാക്കുക ചേച്ചിക്കറിയാമല്ലോ ആ അവിടെ ഉള്ള നമ്മുടെ വീട്ടിൽ ഉള്ള കുറച്ച് പേര്ക്ക് ഫുഡൊന്ന് റെഡിയാക്കി കൊടുക്കുക റെഡിയാക്കി കൊടുക്കുക അപ്പോൾ നാ പിന്നെ ആ ഡ്രസ് ഒക്കെ ഒന്ന് അടുക്കി പെറുക്കി വയ്ക്കുക ആ അപ്പം അങ്ങനൊന്ന് ചെയ്യ് കല്യാണം ഇപ്പം നമുക്ക് വേ ചേച്ചി ഇപ്പോൾ അത്യാവശ്യം ആയത് കൊണ്ടായിരുന്നു നമുക്ക് ഇപ്പം എന്തേലും മാറ്റി വയ്ക്കാനില്ല ഇത് ഉണ്ടോ എന്ന് നോക്കുമോ കുറച്ച് സാലറി കൂട്ടിത്തരാമായിരുന്നു നാളെ കല്യാണത്തിന് പോയില്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാന് പറ്റുമോ എന്ന് ഇപ്പം ഞാന് ചോദിക്കുന്നത് ചേച്ചിക്കത് പറ്റുകയാണെങ്കിൽ ആ എത്ര രൂപ തരികയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു പറയാം കേട്ടോ ചേച്ചി ഒന്നാലോചിക്കട്ടെ ഒരു ആയിരം അല്ലേ ഒരു ആയിരത്തി അഞ്ഞൂറ് ലഭിക്കുവാണെങ്കില് ചേച്ചി ഓക്കെ ആണോ നിൽക്കാന് വേണ്ടി അല്ലേ മൂവായിരം മൂവായിരം നമുക്ക് ഇപ്പോൾ നിൽക്കാന് മൂവായിരം ആണെങ്കില് ആ എന്നാൽ ഓക്കെ ചേച്ചി മൂവായിരം ആണെങ്കില് ഓക്കെ ചേച്ചി നാളെ മുതൽ വീട്ടിൽ പോരെ കേട്ടോ ആ ശരി ചേച്ചി ശരി